എനിക്ക് ഏറ്റവും കളിക്കാനിഷ്ടമുള്ള കായികകല അത് ഫുട്ബോൾ തന്നെയാണ് മനോഹരമായ ഒരു കളിയാണ് ഫുട്ബോള് അത് കളിക്കാനിറങ്ങുമ്പോഴോ കിട്ടണ സുഖം സന്തോഷം സമാധാനം അതൊക്കെ ഒരു വേറെ വേറെ ലെവലാണ് ചിലപ്പോൾ ഒരുമിച്ച് നിന്ന കൂട്ടുകാരായിരിക്കാം എതിരാളികൾ കളിക്ക് പുറത്ത് അവർ കൂട്ടുകാരാണെങ്കിലും കളിക്കളത്തിൽ അവർ ശത്രുക്കളാണ് പക്ഷേ വീണ്ടും കളി കഴിയുമ്പോൾ അവർ വീണ്ടും കൂട്ടുകാരാണ് പക്ഷേ ആ കളിക്കളത്തിൽ ആ ഗോളടിക്കുമ്പോൾ നല്ലയാ സന്തോഷങ്ങളാണ് ഈ ഫുട്ബോളിൽനിന്ന് കിട്ടണ സന്തോഷം എന്തെന്ന് വെച്ചാൽ ഒരു ഗോളടിക്കുകയോ ഗോളടിപ്പിക്കുകയോ അല്ലെങ്കിൽ പ്രാണന് നല്ലൊരു പ്രാണനെ കാണിക്കുമ്പോഴോ കിട്ടണ ഒരു സുഖം അതിൻ്റെ സന്തോഷം സമാധാനം എല്ലാം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ് ഫുട്ബോൾ കളി കഴിഞ്ഞാൽ പിന്നെ അത് ഒരു വേറെ ഒന്നിനെക്കുറിച്ചും ആലോചിക്കേണ്ട കാര്യമില്ല ഒന്നിനെക്കുറിച്ചും ടെൻഷൻ അടിക്കേണ്ട കാര്യവും ഒന്നുമില്ല ഭയങ്കര സമാധാനമാണ് വളരെ മനോഹരമായ ഒരു കായികകലയാണ് ഫുട്ബോൾ